ആന്തകളിയിൽ നിന്ന് വരുന്നത് ആടെ കുറേ തരം കളി കളിക്കും നമ്മ സ്ഥലത്ത് കുറേതരം കളി ഉണ്ട് ഗോലി ഫുട്ബോൾ ക്രിക്കറ്റ് ഇപ്പോൾ ക്രിക്കറ്റ് എന്ന് ക്രിക്കറ്റ് എന്തോരം പാങ്ങ് ആണ് കളിക്കാൻ സാദാ എല്ലാവരും കളിക്കുന്നത് പോലെ മറ്റേ വലിയ ക്രിക്കറ്റ് ഒന്നുമല്ല നമ്മൾ കളിക്കുന്നത് നമ്മൾ കളിക്കുമ്പോൾ പിച്ച് ഇത് ഉണ്ടായില്ല പിച്ച് കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല ഫുൾ കല്ലും മുള്ളും അങ്ങനത്തെ എന്തെല്ലാം ആയിരിക്കും പിച്ച് അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായില്ല അപ്പോൾ പിച്ച് ഇല്ലാത്തപ്പോൾ ഈ കല്ലൊക്കെ തെറിച്ചിട്ട് ബോൾ എവിടെയെല്ലാമോ അപ്പം ബോൾ വേഗം പൊട്ടുവോ എങ്ങനത്തെ ബോൾ ആണ് അറിയുമോ യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ ഗുരൂൻ്റെ ഹാർഡ് ബോൾ ആയിരിക്കും അല്ലെങ്കിൽ ഗുരൂൻ്റെ ഗുരൂ അഭിക്ക്യ അങ്ങനത്തെ ഏതെങ്കിലും ഒരു ബോൾ ആയിരിക്കും കളിക്കുന്നത് ടെന്നിസ് ബോൾ ഐ ടെന്നിസ് ബോളിൽ കളിക്കുന്ന ബാറ്റ് ഒന്നെങ്കിൽ മട്ടിൽ ഉണ്ടാവും ഈ തെങ്ങിൻ്റെ ഓലേൻ്റെ ഇതെല്ലാം ഇല്ലേ മട്ടിൽ മട്ടിൽ ഉണ്ടാവും ആ മട്ടിലിൽ കൊത്തിയിട്ട് ഇതാക്കിയിട്ട് കളിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ ഇത് സാദാ ബാറ്റ് ഏടെന്നെങ്കിലും ഷോപ്പിൽ നിന്ന് പോയിട്ട് ഒരു മുന്നൂറ് നാനൂറ് റുപ്യ അഞ്ഞൂറ് റുപ്യ അത് ചിലപ്പം എല്ലാവരും പൈസ എല്ലാവരും കൂട്ടും ഓര് പത്ത് ഇരുപത് റുപ്യ എല്ലാവരും കൂട്ടിയിട്ട് ബാറ്റും വാങ്ങും ബോളും വാങ്ങും അതെല്ലാം വാങ്ങും ഗ്രിപ്പ് കൈക്കിടന്ന മറ്റേ ഗ്ലൗസ് ഉറയോ എന്താണ് അതിന് പറയുന്നത് ആ ഉറ അതൊന്നും യൂസ് ചെയ്യില്ല ഉറ ഒന്നും ഇടില്ല നമ്മൾ ആകെ ഇടുന്നത് നമുക്ക് അകെ വേണ്ട ചെരുപ്പ് കാൽക്കിടാൻ ചെരുപ്പ് ചില എല്ലാവരും ചെരുപ്പ് ഇടണം എന്നില്ല പിന്നൊരു ബാറ്റ് അതുമാത്രം നമുക്ക് മതി പിന്നെ കീപ്പർ ഉണ്ടായില്ല ചിലപ്പം ബോൾ പെറുക്കാൻ ബാറ്റിങ്ങ് ടീമിന്റെ തന്നെ ആൾക്കാർ ബാക്കിൽ ഉണ്ടാവും ആകെ ഫ്രണ്ടിലോട്ട് മാത്രമായിരിക്കും ക്രിക്കറ്റ് കളിക്കാനുണ്ടാവുക സ്ഥലം ഗ്രൗണ്ട് ചെറുതാണ് അപ്പോൾ സ്ട്രെയ്റ്റ് ഷോട്ട് മാത്രം അതായത് നേ നേരെ നേ സീദ ഷോട്ട് മാത്രമേ നമുക്ക് അടിക്കാൻ കഴിഞ്ഞ അപ്പോൾ അവിടെ മാത്രമേ ആൾക്കാർ ഉണ്ടാവൂ അപ്പുറത്ത് വളപ്പ് എല്ലാം ഉണ്ട് ആടെ മതിലെല്ലാം ഉണ്ട് സൈഡ് സൈഡ് ഇങ്ങനെ മതിലെല്ലാം അപ്പോൾ മതിൽ എല്ലാം അടിച്ചു കൊണ്ടെങ്കിൽ അത് ഔട്ട് ആവും മതിൽ എല്ലാം കൊണ്ടെങ്കിൽ അങ്ങനെ ബോൾ കൊണ്ട് അപ്പുറം മതിൽ കൊണ്ടെങ്കിൽ സിക്സ് ആയിരിക്കും മതിൽ കൊണ്ടിട്ട് അപ്പുറം പോയെങ്കിൽ സിക്സ് മതിൽ കൊള്ളാണ്ട് അപ്പുറം പോയെങ്കിൽ ഔട്ട് അപ്പോൾ സീദ അപ്പുറം പോവാൻ കഴിയുക എല്ലാവരും ഇപ്പോൾ നല്ല വലിയ സിക്സ് ഒന്ന് അടിച്ചിട്ട് അടിച്ച് അടിക്കാൻ കഴിയുക ഔട്ട് ആയിരിക്കും നമുക്കൊരു സിക്സ് അടിക്കാൻ ഒരു ഇതുണ്ട് എന്താണ് പറയുക

പിന്നെ ബാറ്റ് ചെയ്യുമ്പോൾ ഒരാളായിരിക്കും ഒരു സൈഡ് ഇപ്പോൾ ഡബിൾ സൈഡ് കളിക്കില്ല രണ്ട് സൈഡും ആരോ ആൾക്കാർ ഉണ്ടാവില്ല ഒരു സൈഡ് ഉണ്ടാവുക ഓരന്നെ ഔട്ട് ആവുമ്പോൾ അടുത്ത ആൾ ബാറ്റ് പിടിക്കും ഇപ്പോൾ ഓൻ സിംഗിൾ എടുത്തിട്ട് അപ്പുറം പോയിട്ട് വേറെ ആൾ ബാറ്റ് പിടിക്കും ഓൻ സിംഗിൾ എടുത്താൽ അപ്പുറം പോയെങ്കിൽ ഓൻ ഇപ്പുറം വന്നിട്ട് അതിലേ ബാറ്റ് പിടിക്കണം അങ്ങനെ ഒരു ഓവറിൽ അഞ്ച് ഓവർ ആയിരിക്കും നമുക്ക് കളിക്കുന്നത് കുറേ ആൾക്കാർ ഉണ്ടെങ്കിൽ എട്ട് ഓവർ കളിക്കും ആൾക്കാർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും ബാറ്റ് കിട്ടണമെന്നില്ല ഓർ എല്ലാം സാപ്പിസ്റ്റ് പോവും ബാറ്റ് കിട്ടിയില്ലെങ്കിൽ നീ ഔട്ട് ആക് നീ ഔട്ട് ആക് നീ ഔട്ട് ആക് എന്നെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര അലമ്പാക്കും അവർ നല്ല പാങ്ങുണ്ടാവും കളിക്കാൻ ഇപ്പോൾ ശരിക്കും കളിക്കുമ്പോൾ അങ്ങനെ അല്ല ഉണ്ടാകുന്നത് ഇപ്പം ശരിക്കും ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഇപ്പോൾ ഈ സൈഡ് നല്ല പ്രോപ്പർ ആയിട്ട് ഒരു സ്ട്രൈക്കർ നോൺ സ്ട്രൈക്കർ ഉണ്ടാവും പിന്നെ ഇൻ ഫീൽഡ് ഔട്ട് ഫീൽഡ് എത്ര ഡിസ്റ്റൻസ് അടിച്ചെങ്കിലും സിക്സ് ഉണ്ടാവും സിക്സ് അടിക്കാം ഇപ്പോൾ ക്യാച്ച് എങ്കിൽ ഔട്ട് ചിലപ്പോൾ ഈ വൺ പിച്ച് ഈ വൺ പിച്ച് ആണെങ്കിൽ ഔട്ട് ഇല്ല അങ്ങനെ അല്ല ഉണ്ട് നമ്മളെ നാട്ടിൽ അങ്ങനെ അല്ല വൺ പിച്ച് ക്യാച്ച് എല്ലാം ഔട്ട് ടൂ പിച്ച് എങ്കിൽ ഔട്ട് അല്ല വൺ പിച്ച് ക്യാച്ച് ഔട്ട് പിന്നെ ശരിക്കും ക്രിക്കറ്റ് കളിക്കുന്നത് അല്ല ലെതർ ബോൾ നമുക്ക് ലെതർ ബോൾ ഒന്നുമല്ല നമുക്ക് സാദാ സോഫ്റ്റ് ബോൾ കളിക്കും ശരിക്കും ക്രിക്കറ്റ് കളിക്കുമ്പോൾ അമ്പയർ ഉണ്ടാവും വിക്കറ്റ് കീപ്പർ ഉണ്ടാവും ഫുൾ ബൗണ്ടറി റൈഡേഴ്സ് ഉണ്ടാവും അവരെല്ലാം ഉണ്ടാകും നമ്മൾ കളിക്കുമ്പോൾ അങ്ങനത്തെ ആൾക്കാരൊന്നും ഉണ്ടായില്ല നമുക്ക് ആകെ ഉണ്ടാവുന്നത് രണ്ട് ടീമിലത്തെ കളിക്കാർ മാത്രം ആയിരിക്കും അതിൽ ബാറ്റിങ്ങ് ടീം എല്ലാവരും ടോസ് ജയിച്ചെങ്കിൽ ബാറ്റേ ചെയ്യൂ ബോൾ ചെയ്യാൻ ആർക്കും ഇഷ്ടമല്ല ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഫീൽഡ് നിൽക്കാൻ എല്ലാവർക്കും ബെനയാവും ബെനയാവുമ്പോ എന്താണ് പറയുക നല്ലവണ്ണം ബെനയായിട്ടാവുമ്പോൾ ബാറ്റിങ്ങ് ചെയ്യാനൊരു മൂടുണ്ടായില്ല അപ്പോൾ എല്ലാവർക്കും ആദ്യം ബാറ്റ് ചെയ്യണം ബാറ്റ് ചെയ്യാൻ എല്ലാവർക്കും ഇഷ്ടമാണ് ബോൾ ചെയ്യാൻ എല്ലാവർക്കും അങ്ങനെ അറിയില്ല ബോൾ ചെയ്യാൻ ഇപ്പോൾ എനിക്കെല്ലാം ഞാനെല്ലാം കളിക്കുന്നത് എനിക്ക് ബോളിങ്ങ് ഭയങ്കര ഇഷ്ടമാണ് ബാറ്റിങ്ങ് അത്ര എനിക്ക് അറിയില്ല ബോളിങ്ങ് ഞാൻ നല്ലവണ്ണം ചെയ്യും അങ്ങനത്തെ ആൾക്കാരെല്ലാം ഉണ്ട് ഇപ്പം ഫീൽഡിങ്ങ് എല്ലാം നല്ല പാങ്ങുള്ള ആൾക്കാർ ആയിരിക്കും നിലത്ത് വീണിട്ടെല്ലാം ചെയ്യുക എനിക്കൊന്നും നിലത്ത് വീണിട്ട് കളിക്കാനേ കഴിയില്ല ശരിക്കും കളിക്കുമ്പോൾ ഡൈവ് ഇടും ആടെ എല്ലാം ഗ്രാസ് ഉണ്ട് നമുക്ക് ഗ്രാസ് ഒന്നുമില്ല ഗ്രാസ് ഉണ്ടെങ്കിൽ ഡൈവ് ഇടാം തല കുത്തി മറിയാനും ഞാൻ റെഡി ഇപ്പോൾ ഗ്രാസ് ഉണ്ടെങ്കിൽ അത് കഴിയുക ഗ്രാസ് ഉണ്ടെങ്കിൽ അത് കഴിയും ഗ്രാസ് ഇല്ലാത്തതുകൊണ്ട് അത് കഴിയില്ല അപ്പോൾ നമുക്ക് നല്ലതല്ല അപ്പോൾ ഇത് അപ്പോൾ കളിക്കുമ്പോൾ ഈ വീണെങ്കിൽ എല്ലാം കാലെല്ലാം മുറിയും ക്രിക്കറ്റ് കളിക്കുക മെയിൻ ആയിട്ട് നോമ്പിനായിരിക്കും ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ എല്ലാവർക്കും ദാഹിക്കും ക്രിക്കറ്റ് അത്ര മേലനങ്ങണ്ടാത്തതുകൊണ്ട് ദാഹിക്കില്ല അപ്പോൾ നോമ്പിനെല്ലാം ആയിരിക്കും ഈ ഫുട്ബോൾ കളിക്കാണ്ട് ഫുട്ബോൾ കളിക്കാത്തത് നോമ്പിൻ്റെ ടൈം ക്രിക്കറ്റ് കളിക്കും ഈ ക്രിക്കറ്റ് കളിക്കുമ്പോൾ എന്താണെന്ന് പറയാങ്ക് ഈ നോമ്പായതുകൊണ്ട് വേഗം കളി നിർത്തണം കുറച്ച് സമയം ഉണ്ടാവും എല്ലാവരും നാല് മണി ആവുമ്പം വരും അഞ്ച് ആറ് മണി ആവുമ്പോൾ കളി നിർത്തും അൻറ്റ് പെരയ്ക്ക് പോയിട്ട് കുളിച്ചിട്ട് നോമ്പ് തുറക്കാൻ പോവും അപ്പം ആറ് മണിക്ക് നമ്മൾ കളി നിർത്തണം കുറേ കളി കളിക്കാനൊന്നും ടൈം ഉണ്ടായില്ല അവർ അഞ്ച് ആറ് കളി കളിക്കും കൂടി പോയെങ്കിൽ അപ്പോൾ അതിൽ പരമ്പര പോലെ നല്ല സ്പിരിറ്റ് ആയിരിക്കും എല്ലാവർക്കും കളിക്കാൻ തല്ലൊന്നും ആക്കില്ല ചിലപ്പോൾ ഗുലുമാലാവും ഏതെങ്കിലും ഒന്ന് രണ്ട് ആൾക്കാർ ഭയങ്കര ഗുലുമാലായിരിക്കും ഇപ്പോൾ ശരിക്കും കളിക്കുമ്പോൾ അമ്പയർ എല്ലാം ഉണ്ടായതുകൊണ്ട് ഗുലുമാൽ ഒന്നും ഉണ്ടാവില്ല നമുക്ക് ഭയങ്കര ഗുലുമാലും അലമ്പും അങ്ങനത്തെ എന്തെല്ലാം കാര്യവും ഉണ്ടാവും ഇപ്പോൾ ഇപ്പം നമുക്ക് ബരങ്ങി വേറെ സ്ഥലത്തെല്ലാം അങ്ങനെ അല്ല ഇപ്പോൾ വലിയ ഗ്രൌണ്ടിന്റെ അടുത്തെല്ലാം നല്ല ആൾക്കാരുണ്ടാവും കളിക്കാൻ അവിടുത്തെ വലിയ ആൾക്കാരുണ്ടാവും കളിക്കാൻ പുള്ളമ്മാര് മാത്രവല്ല വലിയ ആൾക്കാരുണ്ടാവും അപ്പം അമ്പയർ എല്ലാം ഉണ്ടാവും കളിക്കാൻ പിന്നെ ഫുൾ ബൗണ്ടറി റൈഡേഴ്സും അങ്ങനത്തെ നല്ല സെറ്റപ്പിലായിരിക്കും ലെതർ ബോൾ ആയിരിക്കില്ല എന്തായാലും ഈ ടെന്നീസ് ബോളിൽ തന്നെ ആയിരിക്കും ആടെയും കളിക്കുന്നത് എല്ലായിടത്തും അങ്ങനെ തന്നെ ലെതർ ബോളിന് എല്ലാവരെയും കൈ പൈസ ഇല്ല ഒരു ലെതർ ബോളിന് അഞ്ഞുറു റുപ്യ ഉണ്ട് അപ്പോൾ ഒരു ലെതർ ബോൾ ഒരു കളിക്ക് തന്നെ ഒരു ലെതർ ബോൾ വേണം അപ്പോൾ ആ പൈസയിൽ ബാറ്റ് വാങ്ങാമെന്ന് പറഞ്ഞിട്ട് ലെതർ ബോൾ കളിക്കില്ല പിന്നെ പിച്ച് വേണമല്ലോ ലെതർ ബോൾ കളിക്കണമെങ്കിൽ നല്ല പിച്ച് വേണം കണ്ടീഷണിൽ ഉള്ള ടോപ്പ് ഗ്രാസ് എല്ലാം ഉണ്ട് നല്ല പിച്ച് അതൊന്നു നമ്മള നാട്ടിൽ കിട്ടില്ല അങ്ങനെ നമ്മള നാട്ടിൽ കാസർഗോഡ് എല്ലാം ഇത് ക്രിക്കറ്റേ കുറവ് കളിക്കും ആൾക്കാർ എന്നാലും കുറവ് തന്നെ ഈ അപ്പോൾ നോമ്പിൻ്റെ ടൈമിലെല്ലാം ആയിരിക്കും എല്ലാവർക്കും ക്രിക്കറ്റ് കളിക്കാൻ രാവിലെ എല്ലാം കളിക്കും രാവിലെ എല്ലാം കളിച്ചിട്ട് മതി മറന്നിട്ട് ഒരു പതി വെയിൽ വരുമ്പോൾ എല്ലാവരും പെരയ്ക്ക് പോവും എല്ലാവർക്കും മീൻസ് നല്ലവണ്ണം ചൂട് വെയിലാവുമ്പോൾ എല്ലാവരും പെരയ്ക്ക് പോവും ക്രിക്കറ്റ് കളിക്കാണെങ്കിൽ ചിലപ്പം ബോൾ എല്ലാം കിണറ്റിലെല്ലാം വീണിട്ട് കാണാതാവും അപ്പുറത്തെ വളപ്പിൽ കിണറെല്ലാം ഉണ്ടാവും ആ കിണറ്റിലെല്ലാം വീണിട്ട് ബോൾ കാണാതാവും ബോൾ കാണാതായെങ്കിൽ പറഞ്ഞെങ്കിൽ ഇത് ബോൾ കാണാതായെങ്കിൽ ആ ബോൾ എടുക്കാൻ കഴിയുക കിണറ്റിൽ വീണെങ്കിൽ എടുക്കാൻ കഴിയില്ല ചിലപ്പം കോരിയിട്ടെല്ലാം എടുക്കാൻ കഴിയുക അപ്പോളേക്കും സമയം തീരും ആ സമയത്ത് പൈസ ഉണ്ടെങ്കിൽ അന്ന് ബോൾ വാങ്ങും അല്ലെങ്കിൽ അന്ന് കളിക്കാൻ കഴിയില്ല അന്ന് ഫുൾ ബോൾ പരതി പരതി ചിലപ്പം കാട്ടിലെല്ലാം പോയെങ്കിൽ പരതുന്നത് പാമ്പെല്ലാം ഉണ്ടാവും പാമ്പ് അങ്ങനത്തെ എല്ലാം ഉ എന്തെലാമോ ജീവി എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്ക് നേരെ നോക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്തൊക്കെ ആണെന്നറിയുമോ ഈ ഒന്നെങ്കിൽ രണ്ട് മൂന്ന് ബോൾ വാങ്ങിയിട്ട് വയ്ക്കുവോ ചിലപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ മു ഇടയ്ക്ക് പരതുമ്പോൾ മുമ്പ് കാണാതായ ബോൾ കിട്ടും അപ്പം ആ ബോളിൽ കളിക്കും ഇപ്പം ക്രിക്കറ്റ് കളിക്കുമ്പോൾ ചിലപ്പോൾ ക്യാച്ച് എല്ലാം താഴെ പോവും ക്യാച്ച് പിടിക്കാൻ കഴിയുക നമുക്ക് അപ്പോൾ എല്ലാവരും കളിയാക്കും ചാറ കുറേ ആൾക്കാർ ഉണ്ടാവും കളിക്കാൻ വലിയ ആൾക്കാരും ചെറിയ ആൾക്കാരും ഉസ്താദ്മാരും ഓരെല്ലാം ഉണ്ടാവും നമ്മ ചറപറാ മുമ്പിൽ നിന്ന് കളിക്കാൻ കഴിയില്ല പറഞ്ഞിട്ട് നമുക്ക് എന്താണ് ആക്കുക നമ്മൾ പാല കളിക്കും നല്ല പാങ്ങുണ്ടാവും ക്രിക്കറ്റ് ക്യാച്ച് ഡ്രോപ്പ് എങ്ങാനും ഫുൾ പോയി അന്നത്തെ ഫോമേ ഉണ്ടാവില്ല ഇപ്പോൾ ക്യാച്ച് അല്ലെങ്കിൽ ക്യാച്ച് പിടിച്ചെങ്കിൽ നല്ല ഫോം ആയിരിക്കും ഒരു ക്യാച്ച് എടുത്തെങ്കിൽ ആണ് നല്ല ഫോം ആയിരിക്കും നമ്മൾ കളിക്കുന്നത് നല്ല പാങ്ങുണ്ടാവും ഇപ്പോൾ ബോൾ എല്ലാം കളിക്കും ചിലപ്പോൾ ബോൾ എറിയുമ്പോൾ എല്ലാം ബോൾ പൊട്ടും ബോൾ കൊമ്പായിട്ട് കുറേ കളിച്ച് പിന്നെ കല്ലിലെല്ലാം കളിക്കുന്നത് ഈ കല്ലിൽ കളിക്കുമ്പം ഇങ്ങനെ ബോൾ കഷ് ചിലപ്പോൾ അറിയില്ല പൊട്ടുക ആ ബോളിന് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല ടെന്നീസ് ബോൾ അല്ലേ അപ്പോൾ കല്ലിൽ ഒന്നായിട്ട് ഇണ്ടാല അത് ഉണ്ടാക്കുന്നത് അപ്പോൾ അത് കല്ലും കായൊക്കെ അടിയിലേക്ക് കൊള്ളും അപ്പോൾ ബോൾ പൊട്ടും അപ്പോൾ നമ്മൾ എല്ലാവരും കൂടെ ചിലപ്പോൾ ഒട്ടിച്ചിട്ട് അല്ലെങ്കിൽ അതിന് അഡ്ജസ്റ്റ് ആക്കി കളിക്കും ബോൾ കീറിയിട്ട് പകുതിയാവുന്നത് വരെ പിച്ചാവുന്നത് വരെ കളിക്കും അപ്പോളേക്കും ബാറ്റും തേ ഫാസ്റ്റ് ഫാസ്റ്റ് ആൾക്കാർക്ക് എന്തായാലും ബാറ്റ് ചെയ്യണം അവർ ഫുൾ ബാറ്റ് ചെയ്യും അപ്പം നമുക്ക് രണ്ടാമത് ബാറ്റ് ചെയ്യുന്ന ടീമിന് ബാറ്റിങ്ങേ കിട്ടില്ല ആ ബോൾ പൊട്ടിയതുകൊണ്ട് വേറെ ബോളും ചിലപ്പം ഉണ്ടായില്ല ഉണ്ടെങ്കിൽ കിട്ടും ആദ്യം എല്ലാം ബോൾ എറിയുക ബാറ്റ് ബോൾ ഉണ്ടെങ്കിൽ കിട്ടും അല്ലെങ്കിൽ ബോൾ കിട്ടില്ല നമ്മൾ എന്താണ് ആക്കുക എന്നിട്ട് കുറേ കളിച്ച് കളിച്ച് കളിച്ച് എന്നിട്ട് പയ്യെ എന്താക്കും അറിയുമോ ഈ എല്ലാവരും ബെന്തിരിരിക്കും അപ്പോൾ മ ഇത് ഗ്രൗണ്ട് ഷോട്ട് മാത്രം കളിക്കും അതായിത് ക്യാച്ച് ഔട്ട് പിന്നെ ഫോർ മാത്രം സിക്സ് ഇല്ല മുട്ടിക്കളിക്കണം ഇത് പി ഒരിക്കൽ പിച്ച് ആയിട്ട് പിടിച്ചെങ്കിൽ എല്ലാം ഔട്ട് ആ ബോൾ ഇങ്ങനെ ഷോട്ട് ബോൾ എല്ലാം എറിഞ്ഞിട്ട് തട്ടി തട്ടിലേ ഒരിക്കൽ പിച്ച് പിടിച്ചിട്ടും ഔട്ട് ആയിരിക്കും അപ്പം കീപ്പർ ഉണ്ടാവും പിന്നെ ഒറ്റക്കളിയിൽ എട്ട് ടീം അല്ലെങ്കിൽ മൊക്ക ഒരു കളിയിൽ കളിക്കും അതായത് ഒരാൾ ഒരു ടീം ആയിരിക്കും അപ്പോൾ ഒരേ ഇത് ഒറ്റക്കളി ഒറ്റക്കളി എന്ന് നമ്മൾ പറയും അങ്ങനെ കളിക്കും ഒറ്റക്കളി ഈ ഒറ്റക്കളി കളിക്കുമ്പോൾ നമുക്ക് നല്ല പാങ്ങലാണ് ഈ ഒറ്റക്കളി കളിക്കുമ്പോൾ ഇത് ആൾക്കാരെല്ലാം ഓരോരോ ആൾക്കാരായിരിക്കും ഒരു സ്വാർത്ഥതയിൽ കളിക്കും നമുക്ക് ഞാൻ ജയിക്കണം ഞാൻ ജയിക്കണം പറഞ്ഞിട്ട് ഓര് തന്നെ ബാറ്റ് ചെയ്യണം ഓര് തന്നെ ബോൾ ചെയ്യണം ഓര് തന്നെ ഫീൽഡിൽ നിൽക്കണം എല്ലാവരും ഫീൽഡിങ്ങിൽ എല്ലാവരുമൊക്കെ ഉണ്ടാവും അടുത്ത ബാറ്റ് പിടിക്കുന്ന ആൾ മുമ്പിൽ പോയിട്ട് ഫീൽഡ് നിൽക്കണം അതായത് കീപ്പർ നിൽക്കണം ഫീൽഡ് അല്ല കീപ്പർ നിൽക്കണം ഓര് ഔട്ട് ആയിട്ടാവുമ്പം കീപ്പർ നിന്ന ആൾ ബാറ്റ് പിടിക്കും ബോൾ എറിഞ്ഞ ആൾ കീപ്പർ ഒക്കെ ആവും അടുത്ത ബാറ്റ് പിടിക്കുന്നത് ഓരായിരിക്കും അങ്ങനെയായിരിക്കും ഇപ്പം ഫസ്റ്റ് ബോൾ രണ്ട് ഓവർ ആയിരിക്കും ഫസ്റ്റ് ഒരു ഇപ്പം ബാറ്റ് പിടിച്ചിട്ട് ഔട്ട് ആയ ആൾ ഫസ്റ്റ് ഓവർ ബോൾ ചെയ്യും അടുത്ത ഓവർ അടുത്ത ആൾ ബോൾ ചെയ്യും വേറെ ആരെങ്കിലും ആയിരിക്കും നല്ല ബോൾ എറിയാൻ കഴിയുന്ന ആര് ഓര് ബോൾ എറിയും അങ്ങനെ പൊളിച്ച് എല്ലായിടത്തും കളിക്കുമ്പോൾ അങ്ങനെ അല്ലല്ലോ ഇപ്പം പ്രൊഫെഷൻ കളിക്കുമ്പോൾ പതിനൊന്ന് ആൾ ഒരു ടീം പതിനൊന്നാൾ ഇപ്പുറത്തെ ടീം ചിലപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നുമല്ല പതിനൊന്നാൾ ഒരു ടീം ഉണ്ടാവും പതിനൊന്നാൾ ഇപ്പുറത്തെ ടീമിലും ഉണ്ടാവും അങ്ങനെ ഇപ്പോൾ പ്രൊഫഷനൽ കളിക്കുമ്പോൾ എല്ലാവരും നല്ല കളി കളിക്കും നമ്മൾ അങ്ങനെ അല്ല നമ്മൾ ചാറിലോ ക്കെല് ഗള്ളി ക്രിക്കറ്റ് എന്നെല്ലാമാണ് പറയുന്നത് അങ്ങനെ കളിക്കും എന്തൊരു രസം എന്നോ കളിക്കാൻ ഇപ്പോൾ ശരിക്കും കളിക്കുമ്പോൾ ലെതർ ബോൾ അല്ല അതെല്ലാം മേത്ത് കൊണ്ട് ഇതാവും ഹെൽമെറ്റും വേണം പിന്നെ അങ്ങനത്തെ പാഡ് അങ്ങനത്തെ എന്തെല്ലാമോ ഉണ്ട് ഈ മേത്തിടുന്ന കുറേ സാധനം എല്ലാം ഇല്ലേ അതെല്ലാം വേണം നമുക്കതൊന്നുമില്ല ഈ അതൊന്നും വാങ്ങാൻ ഭയങ്കര പൈസ അല്ലേ അതിന് അതെല്ലാം എങ്ങനെയാണ് വാങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ അതൊന്നും വാങ്ങില്ല നമ്മൾ സാദാ എന്ത് നമുക്ക് ഇതുണ്ട് അങ്ങനെ ടെന്നീസ് ബോൾ മേത്ത് കൊണ്ടാൽ ഒന്നും പ്രശ്നമില്ല ടെന്നീസ് ബോൾ കൊണ്ട് അതൊന്നും അത്ര വേദനനൊമ്പരം ഒന്നും ആവില്ല എല്ലാവരും വലിയ ആളൊന്നുമല്ല ഓർക്ക് അങ്ങനെയാണ് നൊമ്പലാണ് ഒന്നും പേയില്ല പിന്നെ ഹെൽമെറ്റ് അങ്ങനത്തെ ഒരു വസ്തു കണ്ടിട്ടോ ചില ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല അങ്ങനത്തെ സാധനം എല്ലാം പിന്നെ എന്ത് ഇതുതന്നെ നമ്മള കളിയെല്ലാം